ഇപ്പോള് വീട്ടില് നമ്മള് പാചകം ചെയ്യുമ്പള് എല് പി ജി സിലിണ്ടര് ഒക്കെ യൂസ് ചെയ്യുന്ന ആള്ക്കാരാണ് കൂടുതലായിട്ടും നമ്മടെ കേരളത്തിലാണെങ്കിലും പുറമെയാണെങ്കിലും ഇപ്പോൾ നമ്മള് വീട്ടില് മാത്രല്ല നമ്മള് ഇപ്പം കടകളിലാണെങ്കിലും ഏത് ഷോപ്പിലാണെങ്കിലും നമ്മള് യൂസീയുന്നത് എല് പി ജി സിലിണ്ടറും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അത് യൂസെയുമ്പോൾ പല രീതിലുള്ള പ്രശ്നങ്ങള് ചിലപ്പോൾ നമ്മുക്ക് അനുഭവിച്ചേക്കാം അപ്പോൾ കടകളിലൊക്കെ യൂസെയുന്ന സമയത്ത് നമ്മളതിൻ്റെ വയറും കാര്യങ്ങളും അതായത് ആ ഓസും കാര്യങ്ങളും ഒക്കെ കറക്ട് ആയിട്ടാണോ ഉള്ളത് എന്നൊക്കെ നമ്മള് ചെക്ക് ചെയ്യണ്ടൊരു കാര്യമുണ്ട് കാരണമെന്തെന്ന് വച്ചു കഴിഞ്ഞാല് അതിനകത്തെന്തെങ്കിലും ലീക്കും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാല് പല രീതിലുള്ള സ്ഫോടനങ്ങളും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ വീട്ടിലാണെങ്കില് നമ്മളത് കറക്ടായിട്ടന്നെ വേണം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പ്പൊ അത് നമ്മള് കറക്ട് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കില് നമ്മളെ ഓസും കാര്യങ്ങളൊക്കെ ഓട്ടയുണ്ടെങ്കില് പല രീതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മളു ശ്രദ്ധിക്കെണ്ടൊരു അവസ്ഥയാണ് ഉള്ളത് അപ്പം അത് നമ്മള് മെയിന് ആയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഗ്യാസ് കത്തിച്ച് നമ്മള് ഓപ്പണ് ആക്കിയിട്ടിട്ട് പോകാണ്ട് ശ്രദ്ധിക്കണം അതൊക്കെയാണ് മെയിന് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങള്